കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വിളകളെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് കാരണം താപനിലയുടെ ഉയർച്ച അത് വരൾച്ചയ്ക്ക് കാരണമാകുന്നു ആ സമയത്ത് നല്ല രീതിയിൽ വെള്ളം ലഭിച്ചില്ലയെന്നുണ്ടെങ്കിൽ വിളകൾ കൂടുതലും ഇടുക്കിയാണ് ഇടുക്കിയിലൊക്കെ ഏലം കുരുമുളക് അതിൽ ഏലത്തിന് താപനില കൂടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം വേണ്ടതാണ് അതു പോലെ തന്നെ ജലനിര മഴ കൂടി കഴിഞ്ഞാൽ ഇത് ഈ ഏലത്തിൻ്റെ ചുവട് അഴുകി തുടങ്ങും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം പിന്നെ അതൊന്ന് ഒരുപാട് നമ്മൾ ഒരു ചെറിയ കുട്ടിയെ നോക്കുന്ന പോലെ ആണ് ശരിക്കും അത് നോക്കിക്കൊണ്ടു വരുന്നത് ആ ഒരു സമയത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്ന് കഴിഞ്ഞാൽ കാലാവസ്ഥയുടെ വ്യതിയാനം സംഭവിച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതിപ്പോൾ നല്ല രീതിയിൽ അതായത് മണ്ണിൻറ്റെ ഗുണം വീര്യം കീടങ്ങൾ സസ്യ രോഗങ്ങൾ ഇവ ഒരുപാട് ഇത്പോലെ ഒരുപാട് കാര്യങ്ങൾ കൃഷിയെ ബാധിക്കും അതുപോലെ തന്നെ ധാന്യ വർഗ്ഗങ്ങളാണെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ കുറവുണ്ടാകും ചൂടാണെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് താപനില ഉയർന്നാല് വെള്ളപ്പൊക്കം ഇത് കാർഷിക ഉത്പാദനത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇതൊക്കെ